അതായത് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് അതായത് നശിച്ചൊരു കാലം എന്നു വേണമെങ്കിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പറയാം കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല അതായത് വെയിലാണ് അതായത് നല്ല വെയിൽ വേണ്ട സമയത്ത് മഴ അതായത് ഒരുമാതിരി ഒരു കാലാവസ്ഥ അതായത് നമുക്ക് ഇപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതൊരു ജില്ലയിൽ വലിയ കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ജില്ല തന്നെ പിന്നെ നമ്മുടെ രാജ്യത്തല്ല ഇപ്പം ആ ഒരു ജില്ല തന്നെ മുഴുവൻ നശിച്ചു അതായത് വലിയൊരു ഡാമ് പൊട്ടിയിട്ട് സുനാമി പോലെ ഉള്ളൊരവസ്ഥ വന്നു അവർ കുറേ പേര് മരിച്ചു ഇപ്പോഴും പിന്നെ അവരുടെ ബോഡി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെതന്നെ നമുക്കിവിടെ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനനുസരിസിച്ചു തന്നെ നമ്മൾക്ക് വെള്ളപ്പൊക്കം വന്ന് പിറ്റേ വർഷം ആവുമ്പോഴത്തേക്കും നമുക്ക് വരൾച്ച കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് എന്നു വച്ചിട്ടിണ്ടെങ്കിൽ ഇത് മനുഷ്യൻ്റെ ഇടപെടലുകൾ തന്നെയാണ് കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒന്ന് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനസാന്ദ്രത കൂടുതലാണ് അപ്പം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകും പിന്നതുപോലെ തന്നെ നദികളിലുള്ള മാലിന്യങ്ങൾ കാലാവസ്ഥ രീതികൾ തടാകങ്ങൾ പിന്നെ അതുപോലെതന്നെ എന്നു പറയുന്നത് മനുഷ്യൻ്റെ അതായത് ഖനനം പിന്നെ കോറികൾ ഇടിച്ചിടുക പിന്നെ അതുപോലെതന്നെ മരം വെട്ടി കളയുക ഇങ്ങനത്തെ മനുഷ്യൻ്റെ ദുർപ്രവർത്തികൾ കാരണമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ വരുന്നത്